പട്ടിയെ വളർത്താൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ വീട്ടിന് അകത്ത് കയറ്റാൻ എനിക്ക് ഇഷ്ടമല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ അതിന് രാവിലെ ഞങ്ങൾ ചിക്കൻ ചിക്കനും കുറേ ചോറും മഞ്ഞൾപ്പൊടി ക്യാരറ്റ് എന്താണ് മത്തങ്ങ ഇതെല്ലം ഇട്ടൊരു മഞ്ഞ ചോറ് വയ്ക്കും അതും വച്ച് ചിക്കൻ്റെ കഷ്ണവും ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പട്ടി കഴിക്കുകയുള്ളു വേറെ ഒരു പട്ടിയാണെങ്കിൽ ചോറെ കഴിക്കത്തില്ല വെറും രണ്ട് കഷ്ണം ചിക്കൻ കഴിച്ച് ലൂസി രണ്ട് മൂന്ന് കഷ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ പിന്നെ അവളൊന്നും കഴിക്കത്തില്ല ഇത്തിരി വെള്ളം കുടിച്ചതിന് ശേഷം അതാണ് രണ്ട് പേരും രണ്ട് രീതിയാണ് രണ്ട് സ്വഭാവക്കാരാണ് രണ്ട് പേരും ഫുഡ് രണ്ട് നേരെ കൊടുക്കുകയുള്ളു ഉച്ചയ്ക്ക് ഞാൻ കൊടുക്കില്ല ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ കാണില്ലല്ലോ ജോലിക്ക് പോകും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഒത്തിരി ചായ ഞങ്ങൾ കുടിക്കണമെങ്കിൽ അവർക്കും കൊടുക്കും പിന്നെ രാത്രി ഒരു നേരം ഫുഡ് കൊടുക്കും ഈ രണ്ട് നേരം തന്നെ പിന്നെ പിന്നെ ഈ വളർത്താൻ പറ്റാത്തതെന്ന് വച്ചാൽ ഈ മയിൽ അങ്ങനെയുള്ള എന്തോന്നാണ് അങ്ങനെയുള്ള ഞങ്ങൾക്ക് പറ്റില്ലല്ലോ വീട് ഞങ്ങൾ അത്ര വലിയ വീടൊന്നുമല്ല ചെറിയ വീടാണ് ഞങ്ങളുടേത് അപ്പം അതിൻ്റെ അകത്തുള്ള എനിക്ക് ഇഷ്ടമല്ല വീട്ടിനകത്തൊന്നും ഇതിനെ ഒക്കെ വളർത്തുന്നത് ഇഷ്ടമല്ല പുറമെ നിന്നുള്ള ഒരു കൂടും കെട്ടി ആട് കോഴി ഇതിനെ ഒക്കെ ഞങ്ങൾക്ക് വളത്താൻ ഇഷ്ടമാണ് പക്ഷേ പുറത്ത് അതിൻ്റെ കൂടൊക്കെ വച്ച് വേണം ഒക്കെ വളർത്താനായിട്ട് അങ്ങനെയുള്ള ഒരു സ്വഭാവാണ് എനിക്ക് എനിക്ക് വീടിന് അകത്ത് വളർത്തി വൃത്തി കേടാക്കുനതൊന്നും ഇഷ്ടമല്ല അതെപ്പോഴും ഒന്ന് ഞാൻ നിയന്ത്രിച്ച് ഞാൻ ചെയ്യുവൊള്ള് അതൊക്കെ സ്നേഹിക്കും പക്ഷെ പുറത്തിട്ട് സ്നേഹിക്കണം വീട്ടിനകത്ത് ഇഷ്ടമല്ല പിന്നെ വീഡിയോ കാണാനൊക്കെ ആണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ വീഡിയോ കാണും യൂട്യൂബിലൊക്കെ ഞാൻ നല്ലത് കാണും ഇഷ്ടമാണ് വീഡിയോ ഒരുപാട് എനിക്ക് ഇഷ്ടമാണ് ഞാൻ കാണും